നമ്മള് നീണ്ടായിക്കാത്രയ്ക്കൊക്കെ പോവുമ്പോള് ഹെല്മെറ്റെന്തായാലും എടുക്കാറുണ്ട് പിന്നെ നമ്മളുടെ ജാക്കറ്റ് ഗ്ലൗസൊക്കെ എടുക്കാറുണ്ട് പിന്നെ വണ്ടിയില് പലപല എണ്ണ അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ നോക്കിയിട്ട് നീണ്ട യാത്രയ്ക്ക് പോവാറുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ബാഗുകള് എടുക്കും ബൈക്ക് യാത്രയും കൂടെയെക്കെ ആയോണ്ട് നല്ല റ്റയേടൊക്കെ ആയോണ്ട് നല്ല ഫുഡ് ഒക്കെ ചെറിയെ കഴിക്കാന് പറ്റിയ എന്തേലുവൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബാഗെടുക്കും പിന്നെ ഹെല്മെറ്റ് പിന്നെ സമയം നോക്കാന് വാച്ച് പിന്നെ കുറച്ച് നേരം എന്തേലുവൊക്കെ ഒന്ന് എന്റ്റര്റ്റയിനിനു വേണ്ടി ഫോണെടുക്കും അങ്ങനെ പറയണേപ്പിന്നെ ബൈക്ക് യാത്രയും കൂടെയെക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ തീരാന് സാധ്യത കൂടുതലായതോണ്ട് തന്നെ ഒന്നീല് ഗൂഗിള്പേയില് പൈസ വച്ചേക്കും ഇല്ലെങ്കില് അത് ഞാന് കയ്യില് പൈസ എടുക്കും പിന്നെ ബൈക്ക് യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ബൈക്കിലല്ലേ യാത്ര അപ്പോള് എന്തേലുവൊര് എയര്പോട് പോലത്തെ വസ്തുക്കള് എടുക്കാറുണ്ട്